എൻ്റെ ജീവിതത്തിൽ ഞാനൊരു സുപ്രധാന തീരുമാനം എടുത്തത് എൻ്റെ ജോലിയെ സംബന്ധിച്ചാണ് അത് ഞാൻ ജോലിയിൽ എൻ്റെ ചേച്ചി എനിക്ക് ഈ ജോലി വാങ്ങിച്ചു തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മഹിള പ്രധാൻ ഏജന്റാണ് എൻ്റെ ചേച്ചി ഈ ജോലി മേടിച്ചു തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ വളരെ കഷ്ടപ്പെട്ട് നല്ല ഒരു സ്ഥാനത്ത് ഇപ്പം നിൽക്കുകയാണ് അത് ഞമ്മടെ ജോലിയിലുള്ള ആത്മാർത്ഥതയും അതിലുള്ള ഒരു പങ്കായിട്ട് നാം ഞാൻ കരുതുന്നു എന്തര ബുദ്ധിമുട്ട് വന്നാലും എന്ത് ബുദ്ധിമുട്ട് വന്നാലും അതിനെയെല്ലാം ഞാൻ നേരിട്ടാണ് അതിജീവിച്ചാണ് ഈ ജോലി ഇപ്പോൾ ചെയ്ത് കൊണ്ടിരിക്കുന്നത് എൻ്റെ കൂട്ടുകാരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും ഞങ്ങളുടെ മേൽ ഉദ്യോഗസ്ഥരിൽ നിന്നും ഞാൻ ഉപദേശങ്ങൾ സ്വീകരിച്ചാണ് ഈ ജോലി ഭംഗിയായിട്ട് ഞാൻ കൊണ്ടു പോവുകയും കൈകാര്യം ചെയ്യുകയും ചെയ്തത് അത് എൻ്റെ സാറന്മാർ എൻ്റെ മേൽ ഉദ്യോഗസ്ഥന്മാർ ഒക്കെ അതിന് എന്നെ വളരെയധികം സഹായിക്കുകയും ഉപകാരം ചെയ്യുകയും ചെയ്തു തന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ ഈ ജോലി നല്ല ഭംഗിയായിട്ട് ഇപ്പോൾ കൊണ്ടു പോവുകയാണ് എനിക്ക് അത് ഈ ജോലിയിൽ വളരെ ഞാൻ സംതൃപ്തയാണ്